ഹലോ ആരാണ് എന്ത് വേണം ആ ഇത് സ്കൂളിൽ നിന്നാണ് മേരി മാതാ സ്കൂളിൽ നിന്നാണ് വിളിക്കുന്നത് ആ പിന്നെ ഞങ്ങളൊരു പാരൻറ്സ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് എക്സാം ഇപ്പോൾ തീർന്നതല്ലേ ഉള്ളൂ ഓ നെക്സ്റ്റ് ആ ഓക്കെ നെക്സ്റ്റ് ഫ്രൈഡേ ആണ് ആ ട്വൻറ്റി എയ്റ്റ്ത്ത് ഡേറ്റ് പത്ത് മണിക്കാണ് രാവിലെ ഇരുപത്തെട്ടാം തീയതി ആ ഓക്കെ നല്ല ഗുഡ് ബോയ് ആണ് എന്നാലും പ്രത്യേകിച്ച് എസ്പെഷ്യലി പിന്നെ മാത്സിൽ ഒരു ഇത്തിരി വീക്ക് ആയിട്ട് കാണുന്നുണ്ട് അവനെ ആണോ അങ്ങനെ കാണുന്നു ആ ആ ഉം ഉം ആ ആ ആ ആ അപ്പോൾ നമുക്കവനെ ഒന്നും കൂടെ മുൻ നിരയിലേക്ക് കൊണ്ടുവരണം അപ്പോൾ നമുക്ക് രണ്ട് പേർക്കും കൂടെ അതായത് നിങ്ങളും ഞങ്ങളും കൂടെ ചേർന്നുകൊണ്ട് നമുക്കവനെ മുന്നോട്ട് കൊണ്ടുവരണം ഓക്കെ ആ ഓക്കെ അപ്പോൾ നിങ്ങൾ അപ്പോൾ അടുത്ത ദിവസം മറക്കാതെ വരുക കേട്ടോ നല്ല ഗുഡ് ബോയ് ആണ് നല്ല ഡിസിപ്ലിൻ ഉള്ള കുട്ടിയാണ് കുഴപ്പമില്ല ഉം ഉം ആ ഒന്നും ആ നല്ല ആ നല്ല നന്നായിട്ട് പഠിക്കുന്നുണ്ട് നല്ല അടക്കം ഒതുക്കം ഒക്കെ ഉള്ള കുട്ടി തന്നെയാണ്

ഇല്ല നല്ല നല്ല രീതിയിലാണ് നല്ല രീതിയിലാണ് അവൻ ആ പെരുമാറുന്നത് ഉം ആ അതെ അതെ അതെ ആ ഉം ഉം ഉം അതെ ആ അതെ അതെ അതെ ആ ആ അല്ല അവൻ ഗുഡ് ബോയ് ആണ് അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ഫ്രൈഡേ മറക്കാതെ വരുക കേട്ടോ കൃത്യ സമയത്ത് എത്തിച്ചേരാൻ നോക്കുക ഓക്കെ ഓക്കെ ആ ഓ താങ്ക്സ്